ഞാൻ നല്ലോണം പാചകമൊക്കെ ചെയ്യും പക്ഷേങ്കിൽ എനിക്ക് കൂടുതലിഷ്ടം കേക്ക് ഉണ്ടാക്കാനാണ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബക്കാർക്കും ഇങ്ങനെ പിറന്നാളെല്ലാം വരുമ്പോൾ ഞാനെൻ്റെ കുടുംബക്കാർക്കു ഒക്കെ ഞാനാണ് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം എല്ലാവരും അഭിപ്രായം ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് നല്ലതാണ് നല്ല രസമുണ്ട് ഇത് നിങ്ങൾക്ക് ഒരു കച്ചവടാക്കിക്കൂടേന്നൊക്കെ കുടുംബക്കാരോക്കെ പറയുന്നുണ്ട് ഇപ്പം എനിക്ക് ഇപ്പോൾ അങ്ങനെ ചെയ്യാന്ന് താല്പര്യപ്പെട്ടിട്ടും കാര്യമില്ല എനിക്ക് ചെറിയ കുട്ടിയുള്ളതാണ് അപ്പം അവനെയും നോക്കി ഇങ്ങനെ ബിസിന ഇതൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൃത്യ സമയത്ത് കൊടുക്കാൻ പറ്റിലെങ്കിൽ അതെനിക്ക് മോശം അല്ലെ അപ്പം ഞാൻ അപ്പം അവൻ കുറച്ച് വണ്ണം വെച്ച് അങ്കനവാടീലെല്ലാം പോവാണെങ്കിൽ എനിക്ക് ഈ ഒരു ഇത് ചെയ്ത് മുന്നോട്ട് കൊണ്ട് പോകണമെന്നുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിനി അവർ വ എനിക്ക് നല്ല സപ്പോർട്ടാന്നാൾ അപ്പോൾ നമുക്കൊരു ചെറിയ കടയെല്ലാം തുടങ്ങീട്ട് നമുക്ക് ഈ ബിസിനസ്സ് കൊണ്ട് പോകാം പക്ഷേങ്കിലിപ്പോൾകൊച്ചിനെ നോക്ക് അവൻ അങ്കനവാടിയിലോ സ്കൂളൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാണല്ലോ അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമുക്ക് തുടങ്ങാം ഓ ഇവനിപ്പം വണ്ണം വയ്ക്കട്ടെ നിക്ക് നമുക്ക് ചെയ്യാം നീ ഇപ്പം ചെറിയ ചെറിയ ആവശ്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്ക് എല്ലാവർക്കും ഇപ്പം കേക്ക് ഉണ്ടാക്കി എല്ലാവരെ പിറന്നാളിന് അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ വന്ന് എന്നോട് പറയും നമുക്കാക്കിത്തരണം നമ്മളെ കൊച്ചിൻ്റെ പിറന്നാളാന്ന് അപ്പോൾ ഇന്ന ഡേറ്റിന് നിങ്ങൾ ആക്കിത്തരണം അപ്പോൾ അവരൊക്കെ പറഞ്ഞ് നല്ല കേക്ക കേക്കാന്ന് നല്ല ടേസ്റ്റുണ്ട് ഇങ്ങളന്നെ ആക്കിത്തരണമെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് ബേക്കറീന്നൊന്നും വാങ്ങണ്ട നിങ്ങൾ തന്നെ ആക്കിത്തന്നാൽ മതിയെന്ന് എല്ലാന്ന് ഇപ്പം വന്ന് പറയുന്നത് ഒ ഞ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സ് തുടങ്ങും